ചെറുപ്പം മുതലേ എനിക്ക് കൃഷിയോട് ഭയങ്കര താൽപ്പര്യം ഉള്ള ആളാണ് എൻ്റെ അമ്മമ്മ ആയാലും അച്ചമ്മ ആയാലു ഒക്കെ കൃഷി ചെയ്യുന്നത് കണ്ട് വളർന്നിട്ടുണ്ട് നല്ല കൃഷിക്ക് പറ്റിയ ഫലഭൂഷ്ടിയുള്ള മണ്ണായത് കൊണ്ട് അതിൽ നല്ല വിളഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ കൃഷി ചെയ്ത് നല്ല വിളഞ്ഞ് നിൽക്കുന്നത് കാണുമ്പം തന്നെ നല്ല താൽപര്യമാണ് അന്നേ ചെറുപ്പം മുതലേ അത് കണ്ട് വളർന്നത് കൊണ്ടായിരിക്കും കൃഷിയോട് എനിക്ക് ഇത്ര താൽപര്യം അപ്പോൾ ഞങ്ങളെ വീട്ടിൽ പറഞ്ഞാല് കപ്പ ഉണ്ടാക്കും മധുരക്കിഴങ്ങ് ഉണ്ടാക്കും അതുപോലെ തക്കാളി വെണ്ടക്ക പയറ് വഴുതനങ്ങ മത്തൻ കുമ്പളം വെള്ളരിക്ക പടവലം ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് ചെയ്യൽ അപ്പം അതിലേക്കുള്ള വളം വീട്ടിലേക്ക് തന്നെ ഉണ്ടാക്കും വീട്ടിൽ പശുവുണ്ട് അതിൻ്റെ ചാണകവും അതുപോലെ തന്നെ ആണ് വീട്ടിൽ ഉള്ള പച്ചക്കൻ്റതായി മറ്റുള്ള വേസ്റ്റുകൾ അതിൻ്റെ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കും പിന്നെ അത് എടുത്തിട്ടാണ് ഇതിന് വളമായിട്ട് ഉപയോഗിക്കാറ് പിന്നെ ജൈവവളം മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല പിന്നെ ഇതിൽ വരുന്ന കീടങ്ങളെ തുരത്താൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ പുകയില കഷായം തളിച്ച് കൊടുക്കാറാണ് എന്നാൽ പോലും ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല പച്ചക്കറികൾ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ആശ്യമുള്ള പച്ചക്കറികൽ തന്നെ ഞങ്ങളെ പറമ്പിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിന് പുറത്തെ എവിടേയും പോകേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ അതുപോലന്നെ വാഴ ഉണ്ടാക്കാറുണ്ട് ഇതിലേക്ക് വേണ്ട വളങ്ങളൊന്നും പുറത്ത് നിന്ന് രാസവളങ്ങളായിട്ട് ഒന്നും ഈ ഒരു കൃഷിക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കാറില്ല വെറും ജൈവ വളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ